ഇപ്പോൾ ജോലിക്ക് പുറമെയുള്ള എനിക്ക് മെയിൻ ആയിട്ട് വരുന്ന ഹോബികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൂടുതലായിട്ടും ടി വി കാണുക ഫോണിലെ റീല് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നതാണ് ഇപ്പോൾ എന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി വരുന്നത് പിന്നെ വിൻസോ എന്ന് പറയുന്ന ഒരു ആപ്പിൽ ഞാൻ ഗെയിം കളിക്കുകയും അതിലൂടെ ക്യാഷ് ഏൺ ചെയ്യുന്നതൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ഹോബികളും എനിക്കുണ്ട് പിന്നെ അതിനുപുറമേ ഞാൻ പറയുമ്പോൾ എന്റെ സുഹൃത്തുക്കളുമൊത്ത് പുറത്തു പോവുകയും ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് സാധാരണ പിന്നെ എന്താ പറയാ പോയി ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുക അങ്ങനത്തെ കളികൾ കളികളൊക്കെ കളിക്കാൻ ഒക്കെ ആയിട്ട് ഞാൻ പുറത്തൊക്കെ പോകാറുണ്ട് ഇതൊക്കെ എനിക്ക് ജോലിക്ക് പുറമേ കിട്ടുന്ന എന്റെ ഒരു സന്തോഷം ആയിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ എനിക്ക് അത്യാവശ്യം വരയ്ക്കാൻ ഒക്കെയുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ വരയ്ക്കുന്ന അങ്ങനെയുള്ള ഹോബികൾ ഒക്കെ എനിക്കിപ്പോൾ സാധാരണ എന്റെ ഒരു അറിവിലുള്ള ഹോബികൾ ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ജോലി അല്ലാത്ത സമയത്ത് ജോലിത്തിരക്കീന്ന് മാറിക്കഴിയുമ്പോൾ സാധാരണ ചെയ്യാറ് ഇതൊക്കെയാണ് പൊതുവേ ഇപ്പോൾ ഞാൻ എന്റെ ഹോബിയായിട്ട് കാണുന്നതും ചെയ്യുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ഞാനിപ്പോൾ കഴിഞ്ഞുപോകുന്നത്